ജനിച്ച ഉടനെ നമ്മൾ കുട്ടികളെ നമ്മുടെ മുലപ്പാൽ കൊടുത്ത് അവരെ സംരക്ഷിക്കണം അല്ലേ തന്നെ ഒരു വർഷത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ ഒരു അവർക്ക് വേറെ യാതൊരു രീതിയിലുള്ള പാലുകളോ ഒന്നും കൊടുക്കരുത് നമുക്ക് എത്ര എന്തുമാത്രം കൊടുക്കാം മുലപ്പാൽ അങ്ങനെ മുലപ്പാൽ കൊടുത്തു വേണം അവരെ നമ്മൾ വളർത്താനായിട്ട് അതു പോലെ തന്നെ കുഞ്ഞുങ്ങളെ എപ്പോഴും നല്ല പൊതിഞ്ഞ് നല്ല ചൂട് ഒക്കെ കിട്ടുന്ന രീതിയിൽ അവരെ പരിപാലിച്ച് കൊതുകൊന്നും കുത്താതെയും വേറെ വേറെയുള്ള രോഗങ്ങളൊന്നും വരാതെ കുഞ്ഞുങ്ങളെ നല്ല പരിപാലിച്ചു വേണം നമ്മൾ വളർത്താൻ പരിപാലിച്ചു വേണം നമ്മൾ വളത്താനായിട്ട് അങ്ങനെ നമ്മൾ ഓ ആദ്യവർഷം അവരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ മുലപ്പാൽ തന്നെയാണ് എപ്പോഴും അവർക്ക് ഉത്തമം എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറുമാസമൊക്കേ കഴിയുമ്പോഴത്തേനും ഡോക്ടർമാർ പറയും നമുക്ക് കുറുക്കുകൾ കൊടുക്കാം എന്തെങ്കിലും ഈ റാഗി പൗഡർ അല്ലെ ഏത്തക്ക പൊടി അങ്ങനെയൊക്കെയുള്ള കുറുക്കുകൾ ഒക്കെ നമ്മൾ കൊടുക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ മുലപ്പാലിനും വളരെയേറെ പ്രാധാന്യം നമ്മളെന്തു കൊടുത്തെന്നു പറഞ്ഞാലും നമ്മൾ മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ സംരക്ഷിക്കണം യാതൊരു കാരണവശാലും വേറെ രോഗങ്ങളൊന്നും വരാത്ത രീതിയിൽ അവരെ നല്ലതു പോലെ പൊതിഞ്ഞ് നമ്മൾ സംരക്ഷിച്ചാൽ അവർക്ക് അസുഖങ്ങളൊന്നും വരുത്താത്ത രീതിയിൽ വേണം നമ്മളവരെ പരിപാലിക്കാനായിട്ട് കുട്ടികൾ അതുപോലെ തന്നെ വല്ലും മറ്റുള്ളവരൊക്കെ വരുമ്പം അവർ ചാടിയെടുത്ത് ഉമ്മ കൊടുക്കുകയും എടുക്കുക ഒക്കെ ചെയ്യും നമ്മളത് വളരെ സൂക്ഷിക്കണം പക്ഷേ ഇ ഇന്നുള്ള ഈ കാലത്ത് പലവിധ രോഗങ്ങളും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് പിടിക്കും കാരണം അവർ ജനിച്ച ഉടനെ ഉള്ള പ്രതിരോധ ശക്തികളൊക്കെ അവർക്ക് കുറവല്ലേ അതുകാരണത്തേനും അതു പോലെ അവരുടെ ഭക്ഷണക്രമങ്ങൾ ഒക്കെ തന്നെ ആണേലും നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഈ കുറുക്കുകളൊക്കെ നമ്മളവർക്കു കൊടുക്കണ്ടെ റാഗി പൗഡറാണ് പിള്ളേർക്ക് അതു പോലെ നമ്മൾ ഈ ഇവിടെ കടകളിൽ നിന്ന് ഒക്കെ കിട്ടുന്ന പാക്കറ്റ് പൊടികൾ അതൊന്നും ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലേ ഏത്തക്ക ഒക്കെ നമ്മൾ മേടിച്ച് വെയിലത്തു വെച്ച് ഉണക്കി പൊടിച്ച് അവർക്കു നമ്മൾ അതിനകത്ത് ശകലം നെയ്യ് ഒക്കെ ഒഴിച്ച് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അതിൻ്റേതായ ആ ഗുണം അവർക്കുണ്ടാകും നമ്മൾ കടകളിലെ പൊടികളൊന്നും പിന്നെയും പറയാ ഒരിക്കലും മേടിച്ചു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലേ അതിനകത്ത് പല പല മായങ്ങളും ചേർത്താണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ആറുമാസം നമ്മളാദ്യം കുറുക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ചോറൊക്കെ നല്ലതായിട്ട് വേവിച്ച് അതിനകത്ത് പ്പി ക്യാരറ്റോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊടിച്ചിട്ട് ഞെരടിയൊക്കെ അവർക്ക് കൊടുക്കാമെന്നാണ് അതു പോലെ പിന്നെ ഈ ഇത് കിഴങ്ങൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ പൊടിച്ചു വേവിച്ച് നന്നായിട്ടു വേവിച്ചിട്ട് പൊടിച്ച് കൊടുക്കുന്നതൊക്കെ അവരുടെ ആരോഗ്യത്തിന് വളരെ പിന്നെ പശുവിൻ പാൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കഴിവതും നമ്മൾ കൊടുക്കാതിരിക്കുക ഒരു വർഷത്തേക്ക് എന്നു വെച്ചാൽ നമ്മുടെ അമ്മമാരുടെ പാലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം ഒരു മൂന്നു വയസ്സുവരെ ഒക്കെ പിള്ളേർക്ക് അമ്മമാരുടെ പാലാണ് ഏറ്റവും എന്താണെന്നു വെച്ചാൽ അവരുടെ വളർച്ചയുടെയും പ്രതിരോധത്തിൻ്റെയും ബുദ്ധിക്കും എല്ലാറ്റിനും ആയിട്ടും അമ്മമാരുടെ പാലാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെ അതുകൊണ്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ നല്ല നല്ല ഈച്ച ഒന്നും ഈച്ച അങ്ങനെയുള്ള ഒന്നും വന്നിരിക്കാതെ നല്ല രീതിയിൽ അവരുടെ ഭക്ഷണം അവരുടെ പാത്രങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എല്ലാം കഴുകി നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിലിട്ടു കഴുകി ഒക്കെ വേണം അവരുടെ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്ന പാത്രങ്ങളൊക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിപാലിക്കണം അവർക്ക് രോഗങ്ങൾ ഒന്നും വരാൻ നമ്മൾ അനുവദിക്കരുത് അങ്ങനെയൊക്കെയുളള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിന്നെ അവരുടെ ഭക്ഷണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തൈര് തൈരിനകത്തു ശകലം ഉപ്പ് ഒക്കെ ഇട്ട് ചോറിനകത്ത് ഞെരടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പം അവർ അതൊക്കെ നല്ല ആരോഗ്യം തരുന്ന ആഹാരങ്ങളൊക്കെയാണ് നമ്മുടെ അമ്മമാരൊക്കെ പണ്ടൊക്കെയുള്ള അമ്മമാർ ആഹാരത്തിനകത്ത് ഈ വെളിച്ചെണ്ണ ഈ തേങ്ങയിൽ തേങ്ങ ഇട്ടു ചുരണ്ടി ഞെരടിയെടുത്ത് അതിൻ്റെ എണ്ണ നമ്മുടെ നമുക്ക് ചോറിനകത്ത് ഒഴിച്ചൊക്കെ തന്ന് അതിന്റെയൊക്കെ ആരോഗ്യം നമുക്കിന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ആഹാരം കൊടുക്കണം ഒരു വർഷത്തേക്ക് അവരുടെ ആഹാരം ഇങ്ങനെ ഈ ചെറിയ പെട്ടെന്നു ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളായിരിക്കണം നമ്മളവർക്കു കൊടുക്കേണ്ടത്